ഇപ്പോൾ ഞങ്ങളെ ജില്ലയില് പിന്നെ ആരാധനാലയങ്ങൾ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ആരാധനാലയങ്ങൾ ഉണ്ട് ഇപ്പോൾ എന്ന് വെച്ചാൽ മുസ്ലിംസിനാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് ആണെങ്കിലും ഹിന്ദുക്കൾക്ക് ഒക്കെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട് അതുപോലെതന്നെ പള്ളികളും ഒക്കെ വളര കുറച്ചു കുറവാണെങ്കിലും നമുക്ക് ക്ഷേത്രത്തിന് ഒരു പഞ്ഞവും ഇല്ലാത്ത ജില്ലയാണ് നമ്മുടെ കോഴിക്കോട് ജില്ല എന്നുവച്ച് പള്ളിക്കും വലിയ പഞ്ഞം കാര്യങ്ങൾ ഒന്നും ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യങ്ങൾ ആണെങ്കിലും ഉത്സവങ്ങൾ ആണെങ്കിലും സാമൂഹ്യ ശാസ്ത്രം ചരിത്രം എല്ലാത്തിനും നമുക്ക് വലിയൊരു പ്രാധാന്യമുള്ള ഒരു ജില്ല തന്നെയാണ് നമ്മുടെ ജില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് കൂനിയൂർ കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പിന്നെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരുപാട് ശിവരാത്രി പോലത്തെ പിന്നെ ഉത്സവം ഒക്കെ വളരെ അതായത് കടപ്പള്ളി ഉത്സവം ശിവരാത്രി ഉത്സവം ഒക്കെ വലിയൊരു ഗ്രാൻറ് ആയിട്ട് നടത്തുന്ന ഒരു പരിപാടി തന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയില് അപ്പോൾ എന്താണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഗ്രാൻറ് ആയിട്ടുള്ള ഉത്സവങ്ങളാണ് പിന്നെ അതുപോലെതന്നെ ശിവരാത്രി മഹോത്സവങ്ങളൊക്കെ നമ്മൾ നമ്മുടെ ജില്ലക്കാര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ആയിട്ട് പിന്നെ അടിപൊളിയായിട്ട് പിന്നെ ആചരിക്കുന്ന ഉത്സവമാണ് ശിവരാത്രി ഉത്സവവും മലബാർ ഉത്സവവും പിന്നെ ഗ്രാൻറ് മലബാർ ഉത്സവവും എല്ലാ ഉത്സവങ്ങളും